ചേർത്തല വില്ലേജ് ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റെ വൺ ആൻ സർട്ടിഫിക്കറ്റ് എടുക്കണോ പിന്നെ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണോ എന്തൊക്കെ പ്രോസീജ് ആണ് ഇതിന് ആവശ്യമായി വേണ്ടത്

അതോ ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്നിട്ട് സ്കൂളിലെ ഫ്രൂഫ് എല്ലാം എടുക്കണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതിനുവേണ്ടിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ അത്യാവശ്യമായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണിത് ചോദിക്കുന്നത് അപ്പം സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ആധാർ എടുക്കുക അക്ഷയയിൽ പോയി ആധാറും സ്കൂൾ സർട്ടിഫിക്കറ്റും വൺ ആൻ സർട്ടിഫിക്കറ്റ് പിന്നെ വൺ ആൻ സർട്ടിഫിക്കറ്റ് പിന്നേ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡോ ഇതോ എന്നാ ഒക്കെ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വില്ലേജിലോട്ട് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്തോട്ട് പോയി ഇതെല്ലാം ചെയ്തിട്ട് പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകാനാണോ എന്ന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്

വില്ലേജിൽ പോയി ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വാങ്ങിക്കണോ അതോ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് വാങ്ങിക്കണോ അതോ കയ്യിലുളള എസ് എസ് എൽ സി കയ്യിലുള്ള എസ് എസ് എൽ സി ബുക്ക്